തീർച്ചയായും ഞാൻ അതിനെ നൂറ് ശതമാനം സപ്പോർട് ചെയ്യുന്നൊരാളാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള പണികൾക്കൊന്നും ആളിനെ കിട്ടാനില്ല പണ്ട് കാലത്തുള്ളവരാണെങ്കിൽ ഓരോന്നിനും പഠിച്ചത് സയന്റിഫിക്കായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല കണ്ടുപഠിച്ചിട്ടുള്ളതല്ലാതെ ആശാരി പണിയും പ്ലംബിങ്ങും തുന്നലും ഒക്കെ ഒന്നിനു ഒരു ശാസ്ത്രീയമായ രീതിയിലൊന്നും ചെയ്യാൻ ആർക്കും അറിയത്തില്ല ഇപ്പോഴും അങ്ങനെയുള്ളവർ ഇല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആശാരിമാർ ഒക്കെ ഒരു ഒരു ഫിനിഷുണ്ട് എല്ലാ കാര്യങ്ങൾ പണികളിലും ഒക്കെ ഒരു ഫിനിഷിംഗാണേലും അതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ചവർക്കാണ് കാരണം ഞാൻ അത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് പുറം രാജ്യങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ച് നയിജീരിയ ബോട്സ്വാന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അവിടെയൊക്കെ എല്ലാ സ്കൂളുകളിലും ഇതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെയുണ്ട് അവിടെ ആശാരി പണിയും പ്ലംബിങ്ങും പെയിൻ്റിങ്ങും മേസ്തിരി പണി ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ തന്നെ കോഴി വളർത്തലുണ്ട് മൃഗസംരക്ഷണം സ്റേറ്റിൻ്റെ പണി ഇത് മുഴുവൻ പഠിപ്പിക്കുക ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് എനിക്ക് പഠിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേൽ ഇവിടെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ ഈ പ്ലംബിങ് ആശാരി പണി ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല പക്ഷേ ഞാൻ പഠിപ്പിച്ചേടത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് അഥവാ അതുകൊണ്ട് അതിൻ്റെ ഇംപോർട്ടൻ്റ് അതിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് എനിക്ക് അറിയാം കാരണം ഇപ്പോൾ ഒരു ഒരാശാരിയെ വിളിച്ചാൽ ആശാരി പണ്ട് കണ്ടതേതാണ്ടൊക്കെ അവരുടെ ഈ അപ്പനപ്പൂപ്പന്മാരായിട്ട് ആശാരികളായിരുന്നെന്നും അത് അവരിൽ നിന്നും കണ്ട് പഠിച്ചതാണ് ഈ ശാസ്ത്രീയമായിട്ടവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അവരും അവരുടെ ആ പണിക്കൊരു ഫിനീഷിങ്ങില്ല എവിടെങ്കിലും കൊണ്ട് ഒരു തെറ്റ് അല്ലേ എങ്ങനെയെങ്കിലും ഒപ്പിക്കൂന്നുള്ളതല്ലാതെ ശരിക്കും ശാസ്ത്രീയമായിട്ടവർ പഠിക്കുന്നതേറ്റോം നല്ലതാണ് അതുകൊണ്ട് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് തന്നെയുമല്ല എല്ലാവരും വൈറ്റ് കോളർ ജോബ് ചെയ്ത് ചെയ്ത് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും ഇപ്പോൾ ഇവിടെ വീടുകളിലൊന്നും നാട് നാട്ടിലാളില്ല ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ അവരുടെ അവരുടെ അവരുടെ വേജസും കൂടും പഠിച്ച് കഴിയുമ്പോളവരുടെ വേജസ് കൂടും അപ്പോളവർക്ക് കുറച്ച് കൂടെ സമ്പാദിക്കാനൊക്കും അവരുടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ജോലിയുണ്ട് ആളെ കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ ആശാരിപ്പണിക്കാളില്ല പ്ലെമ്പിങ്ങിനാളില്ല തുന്നൽ തുന്നലിനാൾക്കാർ ഇഷ്ടം പോലെയുണ്ട് പിന്നെ മൃഗസംരക്ഷണം മൃഗസംരക്ഷണമോ കോഴി വളർത്തലും ഒക്കെ സ്കൂളുകളിൽ തന്നെ അഗ്രികൾച്ചർ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായിരിക്കേണ്ടതാണ് അവിടെ ഈ കോഴി വളർത്തലും മൃഗസംരക്ഷണത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സയൻ്റിഫിക്കറ്റ് പഠിച്ച് വരുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇതൊരു പിള്ളേർക്ക് തന്നയെ തോന്നും ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് ഞങ്ങൾ പഠിച്ചവരാണ് മറ്റുള്ളവരെ പോലെ ഞങ്ങളും പഠിച്ചവരാണ് അല്ലാതെ ഞങ്ങൾ ചുമ്മാ വെറുതെ വന്ന് ജോലി ചെയ്യുന്നവരല്ല ഒന്നും അറിയാന്മേലാത്തവരല്ല ഞങ്ങൾക്കും ചിലതൊക്കെ അറിയാം എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസും പിള്ളേർക്കുണ്ടാവും കുട്ടികൾക്കുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ സ്കൂൾ സ്കൂളിൽ അവരുടെ സിലബസിൽ ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ എൻ്റെ ശക്തമായ അഭിപ്രായം അത് വരട്ടേയെന്ന് ഞാനാഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ പിള്ളേരും മുന്നേ പഠിച്ച് വലിയ ഐ എ എസ്സും എൻജിനീയറും ഡോക്ടറുമൊന്നും ആകണമെന്നില്ല ഇങ്ങനെയുള്ള ഫീൽഡുകളിലും അവർക്ക് അവർക്ക് അവരുടെ അവർക്ക് പിന്നെ ആദായം ഉണ്ടാക്കാൻ സാധിക്കും അത് അതൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്യാണെങ്കിൽ പിള്ളേർക്ക് കുറച്ച് കൂടെ ഒരു കോൺഫിഡൻസുണ്ടാവും അവർക്കാ പണിയെക്കുറിച്ച് കുറച്ചൂടെ ഒരു അഭിമാനം തോന്നും അല്ലെങ്കിലും ഞാനൊരു ആശാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു പ്ലംബറാ അങ്ങനെയുള്ളയാൾ ഒരു ഒരു ഇൻ കോപ്ലെക്സ് ഉണ്ടാവത്തില്ല കുട്ടികളെ അത് സ്കൂളേൽ പഠിപ്പിച്ച് സ്കൂളുകളിൽ തന്നെ എല്ലാം എബൗ സ്കൂൾ ആഫ്റ്റർ സ്കൂൾ ഓൾസോ അയായത് പ്ലസ് ടൂനും ഈവൻ അല്ല കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ പഠിപ്പിക്കാൻ സാധിക്കേണ്ടിയതാണ് അങ്ങനെ ചെയ്ത് വേണമെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം